ഞാൻ വാങ്ങിയ ധാത്രിയുടെ ഹെയറോയില് വളരെ നല്ലൊരു ഹെയറോയിലാണ് അതെൻറ്റൊരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഞാന് ധാത്രിയുടെ ഹെയറോയിൽ വാങ്ങിയത് കാരണം അവളുടെ മുടി വളരെ നല്ല രീതിയിൽ തന്നെ നല്ല കറുപ്പ് വന്നിട്ടുണ്ട് അവളുടെ മുടിക്ക് അതുപോലെ തന്നെ വളരെ ഉള്ള് വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല വളരെ എന്താ നല്ല നീളം വച്ചിട്ടുണ്ട് അപ്പോള് അത് കണ്ടപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിൻ്റെ മുടി ഇത്രയ്ക്കും നല്ലൊരു ഭംഗിയില് ഉണ്ടായിട്ടുള്ള ചോദിച്ചപ്പോള് അവളാണ് പറഞ്ഞത് അവൾ ചെറുപ്പം മുതലേ ധാത്രി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്താണ് അതുകൊണ്ടാണ് അവൾക്ക് മുടി ഇത്രയ്ക്കും ഭംഗിയായിട്ട് മെയിൻറയിൻ ചെയ്യാൻ കഴിയുന്നതും അതുപോലെതന്നെ നല്ല രീതിയില് വളർന്നത് എന്നൊക്കെയാണ് അവള് പറഞ്ഞത് അവള് പറഞ്ഞതിന് അനുസരിച്ചാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്ട്ട്ടോ കാരണം അത്രത്തോളം എൻ്റെ മുടിക്കും നല്ലൊരു പോസ് നല്ലൊരു ഗുണം എനിക്ക് ധാത്രി ഉപയോഗിച്ചോണ്ട് കിട്ടിയിട്ടുണ്ട്